ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹൗസ് ബോട്ടുകളിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഒന്ന് ആ ഹൗസ് ബോട്ടിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ ഭംഗിയും തന്നെയാണ് ഹൗസ് ബോട്ടുകളുടെ സൗകര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഹൗസ് ബോട്ടുകള് തീർച്ചയായിട്ടും എല്ലാവരെയും ആകർഷിക്കും അതിന് ആ ഹൗസ് ബോട്ടുകളിൽ തന്നെ നമുക്ക് കോൺഫറൻസുകള് നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള ഹൗസ് ബോട്ടുകളുണ്ട് നല്ല എ സി ഹൗസ് ബോട്ടുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത് വളരെയധികം സുഖകരമാണ്

നല്ല രീതിയിലുള്ള രുചികരമായ ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരെയും അട്ട്രാക്ട് ചെയ്യും പിന്നീട് ഉള്ളത് ഹൗസ് ബോട്ടിലെ അതിൻ്റെ പിന്നെ അതിനകത്തുള്ള അല്ലെങ്കിൽ ഹൗസ് ബോട്ടിലെ ഡ്രൈവർ ഡ്രൈവറ് അതുപോലെതന്നെ അതിലെ മറ്റ് ജീവനക്കാര് എന്നിവരുടെ സൗഹൃദമായ രീതിയിലുള്ള പെരുമാറ്റവും തീർച്ചയായിട്ടും നമ്മളെ ആകർഷി വിനോദസഞ്ചാരികളെ ആകർഷിക്കും അതുപോലെതന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൗസ് ബോട്ടില് യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്കാസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതി ഭംഗിയാണ് കായലുകളിലൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ രസകരമാണ് കാരണം കായലിൻ്റെ തീരവും കായലിലൂടെയുള്ള യാത്രയും എല്ലാം നമുക്ക് വളരെയധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് അതുപോലെതന്നെ നമ്മള് തുഴ വഞ്ചികളിൽ നമ്മുടെ ഈ പ്രദേശത്ത് പോലും തുഴ വഞ്ചിയുണ്ട് വള്ളങ്ങളെന്നാണ് വള്ളമെന്നാണ് അതിന് പറയുന്നത് അത് നമുക്ക് അതിന് വേറൊരു പ്രത്യേക അനുഭവമാണ് നമ്മള് ഹൗസ് ബോട്ടില് യാത്ര ചെയ്യുന്നതിക്കാൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണതും വളരെയധികം ആക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് പലർക്കും ഈ തുഴയാൻ താല്പര്യമുള്ളവരുണ്ടാകും അവർക്ക് സ്വയം തുഴഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ മായത്ത പോലും നിരവധി തുഴവഞ്ചികളുണ്ട് അത് പഞ്ചായത്തിൻ്റെ കടത്ത് ആണ് പ്രധാനമായിട്ട് കടത്ത് വള്ളങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് എങ്കിൽ പോലും വരുന്ന ആളുകൾക്ക് പുറത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിന് വരുന്ന ആളുകള് കളെ അതിനകത്ത് യാത്രചെയ്യാൻ അനുവദിക്കാറുണ്ട് പലരും സ്വയം തണ്ടൊക്കെ പിടിച്ച് തൊഴഞ്ഞ് പോകാൻ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നാണ് പ്രത്യേകിച്ച് ഇവിടെ ഈ നെയ്യാർ റിസർവോയർലൂടെയുള്ള തുഴ വഞ്ചിയിലൂടെയുള്ള യാത്ര വളരെ അധികം പിന്നെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് റിസെർവോയറും അതുപോലെതന്നെ വനവും ഒക്കെ കണ്ട് ചിലപ്പോൾ കാട്ട് മൃഗങ്ങളെയും കാണാനായിട്ട് സാധിക്കും ആ യാത്ര തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് പറയാം